നമ്മുടെ ഗ്രാമത്തിലെ ചില നിർഗ്ഗമന സംവിധാനം വളരെ ശോചനീയാവസ്ഥയാണ് കാരണം വെള്ളപ്പൊക്കം പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് വെള്ളം കയറുന്നത് എല്ലാം ഇതിൻറെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെ തുടർന്നാണ് മതിലുകൾ പണ്ട് മതിലുകൾ ഇല്ലായിരുന്നു മതിലുകൾ കയറ്റി കെട്ടി അവരുടെ സ്വന്തം പ്രോപ്പർട്ടികൾ ഒതുക്കി തീർക്കുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല വലിയ ഒരു ദുരന്തത്തിലേക്കാണ് ഇത് പോകുന്നത് എന്ന്

നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ഒഴുകുന്നത് അത് അതിന്റെ ഒഴുക്കിന്റെ ദിശയിലേക്കാണ് താഴ്ച്ചയുടെ ഭാഗത്തേക്കാണ് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കൃത്യമായ താഴ്ചകളിലൂടെ അല്ലാതെ ജലം ഒഴുകുകയില്ല അതിന് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുത്തുമല വയനാട് പോലെ ഉള്ള കുത്തുമല പോലെ ഇവിടെയുള്ള ഉരുൾപൊട്ടലുകൾ അതിനെ തടഞ്ഞ് നിർത്തുവാനോ അതിനെ പ്രതി പ്രതിരോധം നിൽക്കുവാനോ ഒരു മനുഷ്യനോ ഒരു യന്ത്ര സാമഗ്രികൾക്കോ മനുഷ്യൻ കണ്ടെത്തിയ ആധുനിക സംവിധാനങ്ങൾക്കോ സാധിക്കുകയില്ല അത് അതിന്റെ ദിശയിലേക്ക് ഒഴുകുന്നു അതിനുള്ള മുന്നിലുള്ള ഏത് പ്രതിസന്ധിയും അത് വിഴുങ്ങിക്കൊണ്ട് അത്യന്ത്യം വിരളമായി ഒരു വികൃതിയായൊരു മ വികൃതിയായൊരു ചെക്കനെ പോലെ അത് ഒഴുകുന്നു അതിന്റെ അതിന്റെ അതിന്റെ ഉന്നമനം നമുക്ക് അശാസ്ത്രീയമായ ഈ ഓട നിർമ്മാണമാണ് കൂട ഉണ്ടാക്കുന്നു പക്ഷേ അതിലേക്ക് നമ്മൾ മാലിന്യങ്ങൾ തള്ളി തള്ളി അതിന്റെ സുഗമമായ ഒഴുക്കിനെ അത് തടയപ്പെടുന്നു